എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെയ്ച്ചോറും ഇറച്ചിയും ആണ് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അതെനിക്ക് കഴിക്കാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കും വൈഫുണ്ടാക്കിത്തരും അങ്ങനെ ഞാൻ കഴിക്കാറുണ്ട് പിന്നെ അല്ലാണ്ടുള്ളതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് പുറത്തൊക്കെ പോവുമ്പം കഴിക്കാറുണ്ട് പിന്നെ ബിരിയാണിയും കഴിക്കാറുണ്ട് അതാണ് കുറച്ചു കൂടി നല്ലത് അതായത് നൂറ്റമ്പത് രൂപയാണ് ബിരിയാണിയ്ക്ക് ഇപ്പോൾ റേറ്റ് വരുന്നത് പുറത്തു നിന്നു കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്കിഷ്ടം വീട്ടിൽ നിന്ന് കഴിക്കാൻ തന്നെയാണ് കാരണം എന്നു വച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത് എന്താ പറയുക നല്ല എണ്ണയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും കെമിക്കലൊ അങ്ങനെയൊന്നും ഇടുകയില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അജ്നോമോട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് പല അസുഖങ്ങളും വരും ജംഗ് ഫുഡ്ഡൊക്കെ വല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും വരുമല്ലോ അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കാനാണ് കുറച്ചുംകൂടെ താൽപ്പര്യം അതാണ് നമ്മൾക്കും സെയ്ഫ് കാരണം എന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ക്യാൻസർ പിന്നെ വയറു വേദന അപ്പന്റിസ് അങ്ങനത്തെ ഓരോ അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും സെയ്ഫായിട്ട് കഴിക്കാൻ പറ്റുന്നത് വീട്ടിൽ നിന്നു തന്നെയാണ്